ഹലോ ഇത് ട്രാവെൽ എജന്സിയിലെ ഉപജീവ അല്ലെ സംസാരിക്കുന്നത് ഞാനിപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഓട്ടം അഞ്ചരക്കത്തെ കോട്ടയം റ്റു എറണാകുളം ഓട്ടം ബുക്ക് ചെയ്തിരിക്കുന്ന പാസ്സെഞ്ചറാണ് സംസാരിക്കുന്നത് ഞാനൊരു ഒരു എന്റെയൊരു ടൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഞാനിപ്പം എൻ്റെ ലൊക്കേഷനിൽ തന്നെ നിൽപ്പുണ്ട് നിങ്ങള് പേയ്മെന്റിന്റെ മെത്തേഡ് ഒന്ന് അറിയുവായിരുന്നെങ്കിൽ നന്നായിരുന്നു നിങ്ങൾക്ക് ഓണ്ലൈന് പേയ്മെന്റ് അവൈലബിളാണോ കാരണം എന്റെ കയിലിപ്പം കറൻറ്റായിട്ട് ക്യാഷിരിപ്പില്ല നിങ്ങൾക്ക് ഈ ഫോണ് പേയും ഗൂഗിള് പേ അങ്ങനെ എന്തെങ്കിലും അവൈലബിളായിട്ടുണ്ടോ അതോ ഞാന് നേരിട്ട് ക്യാഷ് അടയ്ക്കണോ കറണ്ടായിട്ട് എന്റ് കയ്യിൽ മണി ഇരിപ്പില്ല ഇനി ഇപ്പം ഇത് ഓ ഓണ്ലൈന് പേയ്മെന്റ് അവൈലബിൾ അല്ലെങ്കിൽ എനിക്ക് ക്യാഷ് എങ്ങനെ എങ്കിലും അറേഞ്ച് ചെയ്യാന് വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പം സ്ഥലത്തെത്തി കഴിഞ്ഞിട്ട് അതിന്റെ പേരിലൊരു തര്ക്കം വേണ്ടല്ലോ എന്ന് അതൊഴിവാക്കാന് വേണ്ടിയാണ് ഞാനിപ്പം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഓണ്ലൈന് പേയ്മെന്റ് മെത്തേഡ് അവൈലബിൾ ആണോ ഈ ഫോണ് പേ ജീ പേ പേ റ്റി എം അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അതൊന്ന് അറിയുവായിരുന്നെങ്കില് നന്നായിരിക്കും ഇതിലേതേലും അവൈലബിൾ ആണ് എന്നുണ്ടെങ്കില് ഓക്കെ പക്ഷെ അല്ലെങ്കിൽ എനിക്ക് മണി എങ്ങനെ എങ്കിലും അറേഞ്ച് ചെയ്യണം കാരണം ഇപ്പം എന്റെ കയ്യിൽ പൈസ തീരെയില്ല എനിക്ക് ഏറ്റിഎമ്മീൽ നിന്ന് എന്റെ അക്കൌണ്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ അപ്പം ഇതുണ്ട് ഓക്കെ ഫോണ് പേ ഉണ്ട് അപ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഞാനിപ്പം എന്റെ ലൊക്കേഷനില് തന്നെ നിൽപ്പുണ്ട് കറക്റ്റ് സമയത്ത് തന്നെ വരുവല്ലോ അല്ലേ കാരണം എനിക്ക് അത്യാ അവിടെ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് ടൈമിലെനിക്ക് അവിടെ എത്തണം എറണാകുളം എയർപ്പോർട്ടിലാണ് എനിക്ക് കറക്റ്റ് ടൈമില്ത്തന്നെ എത്തണം എനിക്ക് ഫ്ലൈറ്റ് മിസ് ആകാൻ പാടില്ല ഓക്കെ കറക്റ്റ് ടൈമില് ഓക്കെ ഇനി റ്റെന് മിനിറ്റ്സിനുള്ളില് എത്തുവല്ലോ അല്ലേ ഓക്കെ ഫൈന് ഓക്കെ ഓക്കെ